നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട് അവർ എത്രയോ ആളുകൾ അവരുടെ കലകൾ പുറത്തുകൊണ്ടുവരാൻ കഴിയാതെ ഉള്ളിലൊതുക്കി വച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് സ്ത്രീകൾ എന്നുവച്ചാൽ അവർ കല്യാണം കഴിഞ്ഞുപോയതിനു ശേഷം അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ സമ്മതം അവരുടെ വീട്ടുകാരുടെ സമ്മതം അതൊന്നുമില്ലാതെ അത് പുറത്തുകൊണ്ടുവരാൻ പറ്റാതെ അവർ എത്രയോ പെൺജന്മങ്ങൾ വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അവർ നല്ല നല്ല പാട്ടുപാടുന്നവരായിരിക്കും ഡാൻസ് ചിത്രങ്ങൾ ചിത്ര രചന അറിയുന്നവരായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരിതൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ വീടിനുള്ളിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ നമ്മുടെ യുവ തലമുറയിൽ കുറേ ആളുകളുണ്ട് ജീവിത പ്രാരബ്ധങ്ങളുടെ ഇടയിൽ ഒരുപാട് പേർ ഓട്ടത്തിനിടയിൽ അതൊന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റാതെ ഓടി നടക്കുന്ന ആളുകളുണ്ട് വീടിനുള്ളിൽ മാത്രം അവരവരുടെ കലകൾ പുറത്തുകൊണ്ടു വരുന്നു നമ്മുടെ വീടിനു പുറത്തേക്ക് അവരത് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അവരുടെ സാഹചര്യം മൂലം അവർക്കതിന് പറ്റുന്നില്ല ഇന്ന് കുറേ സോഷ്യൽ മീഡിയ വഴി യുട്യൂബ് വഴിയൊക്കെ ആളുകൾ ഇങ്ങനെ കുറേ കലകൾ പുറത്ത് സ്വയം ആളുകൾ കൊണ്ടുവരുന്നത് ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് വേറെ മറ്റു ചിലർ അത് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നവരുമുണ്ട് പൊതുവെ ആളുകൾ ഇങ്ങനെയുള്ള സ്വയം അവരവരുടെ കലകൾ പുറത്തു കൊണ്ടുവരുന്നില്ല അത് അവരുടെ സാഹചര്യം മൂലമായിരിക്കാം അവർ സ്വയം ഇഷ്ടപെടാത്തതാവില്ല അവരുടെ സാഹചര്യം അതിന് പറ്റുന്നുണ്ടാവില്ല എത്ര പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു കുടുംബമായി അതുകൊണ്ട് വീടിനുള്ളിൽ മാത്രമായി പോവുന്നു വിദ്യാഭ്യാസം ആണെങ്കിലും കലകളാണെങ്കിലും ഒന്നും പുറത്തുകൊണ്ടു വരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളും ഉണ്ട് അവർ അവരുടെ ഭർത്താവിനെ നോക്കണം വീട്ടുകാരെ നോക്കണം കുട്ടികളെ നോക്കണം എന്നും പറഞ്ഞ് അവർ അവരുടെ ജീവിതവും കലയും അവർ മാറ്റിവെക്കുന്നു അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കണ്ടുവരുന്നത് ആദ്യത്തെ തലമുറ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ന് കുറേ കുറേ കുറേ ആളുകൾ അത് പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് സ്വയമായിട്ട് മറ്റുള്ളവരാലും പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണം എത്രയോ ആളുകൾ ഇത് പുറമറിയാതെ ഇരിക്കുന്നുണ്ട് അവരവരുടെ ജോലിത്തിരക്ക് കൊണ്ടും മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പുറത്ത് അറിയിക്കാത്തവരുണ്ട്